ആ എനിക്കും ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് ഞാനും ചെറുപ്പം മുതലേ ഇങ്ങനെ വരക്കുന്നൊരാളാണ് ഇങ്ങനെ പെയ്ഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്നൊരു പടങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ടൈമിൽ എന്നെ ഇങ്ങനെ കുറെ ഡ്രോയിങ്ങിലൊരു ചേട്ടൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു മെസ്സേജ് ചെയ്തു ഇങ്ങനെ നമ്മളെല്ലാ കേരളത്തിലെ എല്ലാ ആർട്ടിസ്റ്റിനേം കൂടെ ഒരു കമ്പൈൻ ചെയ്തൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുവാണ് അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ടാലന്റ്റ് വർദ്ധിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഞാനാ ഗ്രൂപ്പിൽ ആഡായി ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോൾ ഏതാണ്ട് തൗസൻഡ്സിൽ തൗസൻഡ് എബോവിൽ കുറെ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ അവിടെ എല്ലാവരും നമുക്കൊരു ഡെയിലി ടാസ്കുകളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാ ദിവസോം ഓരോ ഡ്രോയിങ് ചെയ്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരതിനകത്ത് ഷെയർ ചെയ്യും എന്നിട്ട് അതിനകത്തു നമുക്ക് സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്തു റിപ്ലൈ ചെയ്യും ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുമൊക്കെ അപ്പം ഞാനും അങ്ങനെ കുറെ ഡൗട്ട്സ് വരുന്നതും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്കും ആ പ്ലാറ്റഫോമിന്ന് കുറെ എൻ്റെ എൻ്റെ ഡ്രോയിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റീട്ടുണ്ട് അത് നല്ലൊരു പ്ലാറ്റഫോമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് നമുക്കങ്ങനെക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം അടുത്ത് അടുത്ത് അങ്ങനെ ഡ്രോയിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ എൻ്റടുത്തൊക്കെ അങ്ങനെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പം നമുക്കെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോക്കെ ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കാനും അത്രയ്ക്ക് അറിവും കാര്യങ്ങളും ഉള്ളവരുതന്നെ ചുരുക്കമാണ് പക്ഷേ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ആ ചേട്ടൻ ആഡ് ചെയ്തേ പിന്നെ അതിനകത്തു കുറെ കുറെ ആർട്ടിസ്റ്റുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ എന്ത് എനിക്കെന്തേലും ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴ്ത്തേക്കിനും എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് അവരെനിക്കെൻ്റെ ഡ്രോയിങ് സ്കില്ല് അത് ഇമ്പ്രൂവ് ചെയ്തിട്ടേ ഉള്ളൂ എനിക്കിങ്ങനെ സ് പോട്രൈറ്റ്സ് ഫേസ് ഡ്രോയിങ്ങൊക്കെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം റിയലിസ്റ്റിക് ഡ്രോയിങ്സൊക്കെ ചെയ്യാനാണിഷ്ടം ഇങ്ങനെ അവരുടെ ഓരോ ഇങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസ് കാരണം എനിക്കെൻ്റെ ഡ്രോയിങ്ങിനെ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടേ ഉള്ളൂ